കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷ മതം ഹിന്ദുമതമാണ് ഹിന്ദുമതത്തില് ഏകദേശം അറുപത്തേഴ് ശതമാനമാണ് അവരെ ജനസംഖ്യ രണ്ടാമത് വരുന്നത് മുസ്ലിം മതവിഭാഗമാണ് അവരുടെ ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ളത് പിന്നെ കൂടുതലായിട്ടുള്ളത് ക്രിസ്ത്യൻ ജനസിം വിഭാഗമാണ് ജനസംഖ്യ അവരുടെ കുറഞ്ഞു കൊണ്ട് വരികയാണ് പാർസി സിൻഡ്രോം എഫ്ഫക്റ്റ് ബാധിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരു മതവിഭാഗമാണ് ക്രിസ്ത്യൻ മതവിഭാഗം കൂടുതൽ ആൾക്കാരും

പക്ഷെ ഹിന്ദു ജനസംഖ്യ മാറ്റമില്ലാണ്ട് തുടരുന്നു അവരുടെ കുറവ് ബാക്കിയുള്ള മതവിഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറവായിട്ട് തോന്നുന്നില്ല പക്ഷേ എങ്കിലും അവരുടെയും ജനസംഖ്യ ജനന നി ജനനനിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടും മറ്റും ഹിന്ദു തീവ്ര വലതുപക്ഷ വിഫാഹങ്ങളാണ് ഭരണത്തിലേക്ക് വരുന്നത് അതുപോലെ മുസ്ലിം തീവ്രവ തീവ്ര ചിന്താഗതിക്കാരായ ആളുകളും ഇന്ന് കേരളത്തിൽ ഏറി വരുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ തീവ്ര വിഭാഗകാർ കയറി വരുന്നു അങ്ങനെ മതം ഇന്ന് എല്ലാ രീതിയിലും